കുട്ടികൾക്കായി രചിക്കപ്പെട്ട പാട്ടുകൾ കേട്ടിട്ടുണ്ട് അവ പാടാറുമുണ്ട് പിള്ള കുട്ടികൾക്ക് പാടികൊടുക്കാറുമുണ്ട് അതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് പ ഞാൻ കേട്ടിട്ടുള്ളതെന്നു വെച്ചാൽ പണ്ട് സി ഡി ടി വിയിൽ വന്ന് ഉണ്ട് പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അത് പാടികൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷത്തോടെ അവരത് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകളിൽ നിന്ന് പണ്ടത്തെ പോലത്തുള്ള മഞ്ചാടി ഡോറ ആൻഡ് ബുജ്ജി അങ്ങനെയുള്ള പൂപ്പി അങ്ങനെയുള്ള സി ഡിൽ അങ്ങനെയുള്ള ആ കാസെറ്റിൽ നിന്നുള്ള ആ പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പാട്ടുകൾ അവർ അക്ഷരങ്ങൾ പഠിക്കുന്നു നിറങ്ങൾ വെച്ചിട്ടുള്ള പാട്ട് കളുള്ളപ്പോൾ അവർ ആ നിറങ്ങൾ പഠിക്കുന്നു പിന്നെ മാസങ്ങൾ കൊണ്ടുള്ള പാട്ടുകളുണ്ട് അപ്പം മാസങ്ങൾ പഠിക്കുന്നു ആന ആനയെപ്പറ്റി പഠിക്കുന്നെങ്കിൽ ആനയ്ക്ക് മുറം പോലുള്ള രണ്ട് ചെവി ചൂലു പോലുള്ള ഒരു വാല് തൂണു പോലുള്ള നാല് കാല് മുത്തു പോലുള്ള രണ്ട് കണ്ണുകൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ അവർ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ ഇടവരുന്നു ഇടവരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ പിള്ള മക്കൾക്ക് വേണ്ടി പാട്ട് പാടി കൊടുക്കാറ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർക്കത് പഠിക്കാൻ പറ്റുന്നുണ്ട്